നമുക്ക് ചുറ്റും ഇപ്പോള് ഒരുപാട് വിഭാഗക്കാര് ജീവിക്കുന്നുണ്ട് ഇപ്പോള് നമ്മള് ക്ലാസിക്കൽ ആണെന്നുണ്ടെങ്കിലും വെസ്റ്റേണ് ആണെന്നുണ്ടെങ്കിലും രണ്ടും കൊണ്ടുനടക്കുന്നവരുണ്ട് പിന്നെ ക്ലാസിക്കല് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിലും കാര്യങ്ങളിലും ക്ലാസിക്കല് മാത്രമേ പറ്റുന്നുള്ളൂ അതുമാത്രം ഇപ്പോള് വെസ്റ്റേണ് വെസ്റ്റേണൊന്നും നമ്മുടെ കലോത്സവങ്ങളിൽ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസിക്കലിലോട്ട് പോകുന്നുണ്ട് കാരണം ഇപ്പോള് നമ്മള് ടെന്ത് ആവുമ്പോഴും പ്ലസ്റ്റു ആവുമ്പോഴും ഒക്കെ നമുക്കൊരു ഗ്രേസ് മാർക്കിന്റെ ഒരു മുന്നില് കണ്ടുകൊണ്ട് ഇങ്ങനെയൊരു ഇതിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും അതിനിത് പഠിക്കണം അതിന് സ്റ്റേറ്റിലും ജില്ലയിലും കാര്യങ്ങളിലും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രേസ് മാർക്ക് കൂടുതലായിട്ട് കിട്ടുമെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുകാലം അതിനുവേണ്ടി പഠിക്കുന്നവരും ഉണ്ട് പക്ഷേ ഇതിനെ കൊണ്ടുനടക്കാൻ ഇഷ്ടപ്പെട്ടിട്ടു കൊണ്ടു നടക്കുന്നവരും ഉണ്ട് ജീവിതമാർഗം ആക്കി കൊണ്ടുനടക്കുന്നവരും എല്ലാവരും നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് ഏതു തരക്കാര് എന്നില്ല കാരണം നമുക്ക് ചുറ്റും ഒരുപാട് വിഭാഗക്കാരല്ലേ ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു ഗ്രേസ് മാർക്കും ഒരു കലോത്സവങ്ങളിൽ ഇങ്ങനെ ഒരു എന്താണ് ഒരു വിഭാഗം ഇല്ലാത്തതുകൊണ്ടും ക്ലാസിക്കലിലോട്ട് ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോള് നമ്മള് പാരന്റ്സിനു വേണ്ടിയിട്ട് എന്താണ് ചിലപ്പോള് കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടാവുക വെസ്റ്റേണ് ആയിരിക്കും കാരണം ഇന്നത്തെ തലമുറ അങ്ങനെയാണല്ലോ പക്ഷേ നമുക്ക് പാരന്റ്സിനെ മുന്നില് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസിക്കലിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് പിന്നെ ഒന്നും കൂടെ കാണാനും നമ്മള് മലയാളികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു ക്ലാസിക്കൽ ആയിരിക്കും പക്ഷേ പുറത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു ന്യൂ ജെൻ ആളുകൾക്ക് നമ്മളുടെ വെസ്റ്റേണിനെ കുറിച്ചായിരിക്കും ഒന്നും കൂടെ താൽപര്യം തോന്നുന്നുണ്ടാവുക